ആ അതേലൊ ഇതാരായിരുന്നു ആ അതേലൊ എന്തായിരുന്നു ആണോ ഓക്കെ എന്നിട്ടെന്നാ ടാബ്ലെറ്റെന്തേലും കഴിച്ചിട്ടുണ്ടായിരുന്നോ ആണോ ഇപ്പോൾ എത്ര ദിവസായി തുടങ്ങിയിട്ട് ആണോ ഇതിപ്പം വൈറൽ ഫീവർൻ്റെ ടൈമാണ് അപ്പോൾ അതിൻ്റെയായിരിക്കും എന്തായാലും ഇപ്പം ഞാനെന്തായാലും രണ്ട് ടാബ്ലെറ്റ്സ് എഴുതി തരാം അതെന്തായാലും കഴിച്ച് നോക്ക് കെട്ടോ എന്നിട്ട് കഴിച്ചിട്ട് കുറഞ്ഞില്ലേൽ ക്ലിനിക്കിലേക്ക് വരണം പിന്നെ എന്തേലും തലവേദന ഛർദി അങ്ങനെന്തേലും ഉണ്ടോ ജലദോഷം തൊണ്ടവേദന അങ്ങനെന്തേലും ഉണ്ടോ ആണോ ആ ഓക്കെ ഇപ്പം വൈറൽ ഫീവറിൽ എല്ലാവർക്കും ഭയങ്കര ഛർദിയും പനിയും അതൊക്കെ കാണുന്നുണ്ട് ഛർദിയാണേലും ഭയങ്കര വയറ് വേദനയും എല്ലാക്കീട്ട് ഭയങ്കര പ്രശ്നങ്ങളുള്ള ടൈമാണ് ആ ഓക്കെ ഓക്കെ അത് നമ്മുടെ ഇപ്പത്തെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ് ആ വൈറൽ ഫീവറ് തന്നെയാണ് എന്തായാലും അപ്പം നല്ലപോലെ ഫുഡ് കഴിക്കാൻ ന്യൂട്രീഷ ന്യൂട്രീഷൻസൊള്ള ഫുഡ് കഴിക്കുക ഫ്രൂട്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കുക അതുപോലന്നെ വെൾ ഓക്കെ അപ്പം നല്ല പോലെ വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ ഈ കാലം അത്യാവശ്യം നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് ആതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പം നല്ല പോലെ വെള്ളമൊക്കെ കുടിക്കുക പിന്നെ ഈ മെല് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ

ഓക്കെ ഞാനാ ആ ആണോ ഞാനറുനൂറ്റമ്പതിൻ്റെ ഒരു പാരസെറ്റാമോളും പിന്നെ സിട്രിസിനൊക്കെ എഴുതീയിട്ടുണ്ട് അതെല്ലാം ഒന്ന് വാങ്ങിച്ച് കഴിക്കുക അതെല്ലാം കഴിച്ചിട്ട് എന്താ അവസ്ഥാന്ന് നോക്കിയിട്ട് കുറഞ്ഞില്ലേൽ വരിക നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം വേറെന്തേലും എന്തേലും ഇൻഫെക്ഷൻസും കാര്യങ്ങളും കൊണ്ടാണോ വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല പോലെ ഫുഡ്ഡൊക്കെ കഴിക്കണം മറക്കരുത് കാരണം ഇപ്പോൾ ഫുഡ്ഡെന്ന് പറയുന്നത് ഈ ഒരു ടൈമായ കൊണ്ട് ഫുഡ്ഡിൻ്റെ ഇത് എന്താ പറയുക ഫുഡ്ഡിന്റാവശ്യം കൂടുതലുള്ള ടൈമാണല്ലോ വെയിലും കാര്യങ്ങളുമൊക്കെ ആയത് കൊണ്ട് നമ്മള് പെട്ടെന്ന് ഡൗൺ ആയി പോന്ന സിറ്റുവേഷൻ ആണ് ഫുഡ്ഡാണേലും വെള്ളവാണേലും നല്ല പോലെ കഴിക്കാൻ നോക്കുക അതുപോലന്നെ നല്ലപോ റെസ്റ്റെടുക്കുക പിന്നധികം അടുത്തുള്ള മീൻസ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഓവർ കോണ്ടാക്ടിനൊന്നും നിൽക്കണ്ട കാരണം നമുക്ക് വന്നൂ വിചാരിച്ച് അവർക്ക് കൂടി വരുത്തി അവർക്കുംകൂടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ ആണോ അത് ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്താ ചെയ്യണ്ടേന്നൊള്ളെ പറഞ്ഞ് തരാം ഇപ്പെന്തായാലും പനിയൊക്കെ മാറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്തായാലും നല്ല പോലെ റെസ്റ്റെടുക്ക് ഇനിയിപ്പം റെസ്റ്റെടുത്തിട്ട് രണ്ടിവസം കൂടെ നോക്കിനോക്ക് ഈ ടാബ്ലെറ്റ് കഴിച്ചിട്ട് എന്നിട്ടും കുറവില്ലേൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങള് അപ്പം നോക്കാം

അതൊണ്ടല്ലോ നമുക്ക് ചെല പൊടികൾടെ അടുത്ത് ഭയങ്കര അലർജി ഉണ്ടാവും പൊടികളോട് മാത്രമല്ല നമക്ക് പല തരത്തിലുള്ള അലർജീസൊണ്ട് അപ്പോൾ ഈ പൊടി കാരണം ആവാം മേബി ഇപ്പമുള്ള പനി കഴിഞ്ഞിവസം എന്തേലും പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നോ ആ അപ്പം ഈ പൊടി അടിച്ചാൽ ജലദോഷമായി അങ്ങനെ പനി ആയതായ ആ കാനും ചാൻസണ്ട് നമുക്കെന്തായാലുമിപ്പം റിസ്ക് എടുക്ക് ആ അപ്പം അങ്ങനെയാവാനും വഴിയുണ്ട് ആ ഓക്കെ ജലദോഷം കൂടി കൂടി പനിയായതാണ് അപ്പൊന്തായാലും അപ്പോൾ നമുക്ക് പനിയാന്ന് പറഞ്ഞ് ചെറിയത് ചെറിയൊരസുഖമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ എന്തായാലും റെസ്റ്റെടുക്കണ്ട സമയാണ് നല്ലപോലെ റെസ്റ്റെടുക്കുക ഛർദിക്കാൻ വരുവാന്ന് വിചാരിച്ച് ഫുഡ്ഡ് കഴിക്കാണ്ടിരിക്കരുത് മാക്സിമം പറ്റുന്ന പോലെ ഫ്രൂട്സൊക്കെ കഴിക്കാൻ നോക്കുക അതാകുമ്പോൾ ഒരു സ്മെൽലൊന്നുമില്ലല്ലോ ന്യൂട്രീഷൻസും ആണ് ഓക്കെ എന്നാൽ നോക്കീട്ട് കുറഞ്ഞില്ലേൽ ഹോസ്പിറ്റലിലേക്ക് വരണം ഓക്കെ ഓക്കെ താങ്ക്യൂ